നൃത്തം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് അതിൽനിന്ന് ഒരു സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത് നൃത്തം ചെയ്യുമ്പോൾ ആളുകൾ ആ ഒരു പാട്ട് അവർ നൃത്തത്തിനായി തിരഞ്ഞെടുക്കുന്ന പാട്ട് അത്രയധികം അർത്ഥവത്തായ രീതിയിൽ അത് മറ്റുള്ളവർക്കൊരു സന്ദേശം നൽകുന്ന രീതിയിലാണ് അവരെപ്പൊഴും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു നൃത്തമെടുക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അതൊരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്തു മിനിറ്റ് മിനിറ്റിന് ഇടയിലുള്ള ഒരു പാട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ ഒരു കഥ പറയുന്ന അല്ലെങ്കിലൊരു വ്യക്തിയുടെ ജീവിത കഥ പറയുക അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുക അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയായിരിക്കണമെന്നുള്ള രീതിയാണ് ആ ഒരു പാട്ടിലൂടെ ആ ഒരു നൃത്തത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് അതിൽ മുദ്രകൾ കൊണ്ടുവെക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു കാണിക്കേണ്ടത് ഇങ്ങനെയാണ് അയാളുടെ ജീവിതം പകർത്തിയെടുത്തത് അല്ലെങ്കിൽ അയാള് ജീവിക്കുന്നത് എന്നുള്ള രീതി നമുക്ക് മുന്നിൽ അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നൃത്തം അഭ്യസിക്കുന്നവർ നൃത്തം പരിശീലിക്കുന്നവർ കുറേ കാലമായിട്ടുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ പരിശീലനം ഒക്കെ നേടിക്കൊണ്ടാണ് നൃത്തത്തിനായിട്ട് കടന്നു ചെല്ലുന്നത് അവർ അങ്ങനെ ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ടാണ് ജനപ്രീതി ആർജ്ജിക്കുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു കാഴ്ച്ച മനോഹരമായിട്ടുള്ള ദൃശ്യവിഷ്കാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ അത്രയും കഠിന പരിശ്രമമാണ് നമുക്കതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് അവർ നൃത്തം നൃത്തം പഠിക്കുകയും പരിശീലിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നൃത്തത്തിന് വേണ്ടിയുള്ള അതിൻ്റെ വസ്ത്രധാരണമൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഒന്നാണ് കാലുകളിൽ ചിലങ്കയും അതുപോലെതന്നെ കാലിൽ കാലിൽ അൾട്ടാ അല്ലെങ്കിൽ ഛായം തേച്ചുകൊണ്ട് കയ്യിൽ ഛായം തേച്ചുകൊണ്ട് കഴുത്തിൽ മാല പിന്നെ അതുപോലെതന്നെ വളകൾ അതുപോലെതന്നെ തലയിൽ അതിനനുസരിച്ചുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വളരെയധികം മനോഹരമായാണ് അവർ നൃത്തം അഭ്യസിക്കുന്നത് അപ്പോൾ ഓരോ നൃത്തവും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അല്ലെങ്കിൽ വളരെയധികം സ്വാധീനം നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ കുച്ചുപ്പുടി ആയിക്കോട്ടെ ഭരതനാട്യം ആയിക്കോട്ടെ കേരളനടനം ആയിക്കോട്ടെ നാടോടിനൃത്തം ആയിക്കോട്ടെ എല്ലാം ജനങ്ങൾക്ക് ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങളിലേക്കൊരു സന്ദേശം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ നൃത്ത അവതരണം അല്ലെങ്കിൽ അനുസ്മരണീയമാക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഈയൊരു സ്വാധീനം വളരെയധികം ശക്തിയാചരിക്കുന്ന ശക്തിയാചരിക്കുന്ന ശക്തിയാർജിക്കുന്ന ഒന്നാണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അത്